ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റല് അവിടെ പ്രസവത്തിന് വേണ്ടി മാത്രം ഒരു ബ്ലോക്കാണുള്ളത് പ്രസവവാർഡുണ്ടവിടെ അപ്പോൾ അതേപോലെ അവിടെ ഗർഭിണിയെയും കൂടെയുള്ള കൂടെ ഒരാളെയും മാത്രേ അകത്ത് പ്രവേശിപ്പിക്കുള്ളു വേറെ കൂടെ വരുന്നവരൊന്നും അകത്ത് പ്രവേശിപ്പിക്കില്ല ഇപ്പോൾ അവിടുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ ബൈസ്റ്റാൻഡർക്ക് വീട്ടിലൊക്കെ പോവുകയോ അല്ലങ്കിൽ കുളിക്കുകയോ ചെയ്യണമെങ്കിൽ ഫ്രഷാകാനൊക്കെ വീട്ടിലേക്ക് പോകണമെന്നുള്ള സമയങ്ങളില് വേറൊരാളെ വന്ന് ആ സമയത്ത് കയറ്റും പിന്നെ അതുപോലെ അത്യാ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസൊക്കെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് അവിടെ ഇൻക്യൂബേറ്റർസ് അങ്ങനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ആവശ്യത്തിന് ഡോക്ടറ്മാരും സ്റ്റാഫുകളെല്ലാം ഉണ്ട് പുറത്തുനിന്ന് ആരേയും അവര് അകത്ത് കേറ്റത്തില്ല കുട്ടികളെയൊക്കെ കാണിക്കാനോക്കേ കാ ബാക്കിയുള്ളവർ കാണണമെങ്കിൽ വരെ ഒരു പ്രത്യേക സമയങ്ങളില് പുറത്ത് കൊണ്ട് വന്ന് കാണിച്ച് കൊടുക്കുക ചെയ്യുന്നത് ബാക്കിയുള്ള ആരേയും അകത്ത് കയറ്റി കാണിപ്പിക്കില്ല അവര് കുട്ടികളുടെ ആരോഗ്യം നല്ല രീതി ശ്രദ്ധിക്കുന്നത് കൊണ്ടാണവരങ്ങനെ ചെയ്യുന്നത് അതുപോലെ എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും അവിടെയുണ്ട് ഹോ ഹോസ്പിറ്റലില് എന്തെങ്കിലും സീരിയസായിട്ടുള്ള പ്രസവം വരുവാണെങ്കിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ആ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്